മലയാള ഭാഷ എന്നുള്ളത് മലയാള ഭാഷയിൽ ഓരോ ജില്ലകളിലും വ്യത്യസ്തമായ ഭാഷകൾ സ്ലാങ്ങിലാണ് സംസാരിക്കാറ് മലപ്പുറത്ത് വേറൊരു രൂപത്തിലാണെങ്കിൽ കാസർകോഡ് അത് കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് മലയാള ഭാഷ അവിടെ സംസാരിക്കാറ് ഇപ്പോൾ ഇംഗ്ലീഷ് സംസ്കൃതം തുടങ്ങിയ ഭാഷകളും മലയാള ഭാഷയെ പൂർണ്ണമായി നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് കാരണം മലയാള ഭാഷ എന്നുള്ളത് സംസ്കൃതം ഇംഗ്ലീഷ് അറബി ഉർദു പല ഭാഷയിൽനിന്നും വലിച്ച് കൊണ്ട് വന്നതാണ് ഈ എമ് എസ് നമ്പൂതിരിപ്പാട് അന്ന് ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടത്ത് കൊണ്ട് വന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് അങ്ങനെ മലയാള ഭാഷ അങ്ങനെയാണ് മലൈ സംസ്കൃതത്തെ ഇംഗ്ലീഷ് നിന്ന് തുടങ്ങിയ ഭാഷകളെ സ്വാധീനിക്കുന്ന രീതി അതിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ തുടർന്നുള്ള ഈ മലയാള ഭാഷ എന്നുള്ളത് ഒരു ഭയങ്കര റിസ്ക്കുള്ള ഭാഷയാണെങ്കിലും മല മലയാള ഭാഷ ഒക്കെ മലയാളി എന്നുള്ള നിലക്ക് മലയാള ഭാഷ അറിയൽ എല്ലാവർക്കും സുഖകരമായി തോന്നിപ്പോവുമെങ്കിലും മറ്റുള്ള ഒരാൾക്ക് മലയാള ഭാഷ പഠിക്കാനുള്ള അതി ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ കഠിനമാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന നിലക്ക് മലയാള ഭാഷയെക്കുറിച്ച് അതിമനോഹരമായ ഭാഷയാണ് കേരളത്തിൻ്റെ തീരങ്ങളിൽ മനോഹരമായ വർണാപമായ സാഹിത്യങ്ങൾ കൊണ്ട് നിറച്ച ബഷീറിനെ ഓർമ വരുന്നുണ്ട് മലയാള ഭാഷയെക്കുറിച്ച് പറയ് മലയാള ഭാഷ എന്നുള്ളത് അത്രയും മനോഹരവും സുന്ദരവും സുശീലവുമായ രീതിയിലുള്ള ഒരു അത്രയും നല്ല രീതിയിലുള്ള ഒരു ഈ മലയാള ഭാഷയെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം മലയാള ഭാഷ എന്നുള്ളത് തീർച്ചയായും അതിൽ സംസ്കൃതം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചില ഭാഗങ്ങൾ സംസ്കൃതം കൂടുതലായി ഉൾക്കൊണ്ടിട്ടുണ്ട് പിന്നെ ഇംഗ്ലീഷ് ഭാഗം കുറച്ച് ഉൾക്കൊണ്ടിട്ട് അറബി അതിനേക്കാൾ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട് മറ്റ് ഭാഷകളിൽ ഉർദു ഹിന്ദി എന്നുള്ള ഹിന്ദി ഭാഷകളെ കുറച്ചുംകൂടി മലയാള മലയാളത്തിൽ സ്വാധീനിക്കുകയുണ്ടായിട്ടുണ്ട് കാരണം മലയാള ഭാഷ അതിനൊക്കെ ശേഷം തുടങ്ങിയതാണ് മലയാളികൾക്ക് വേണ്ടി ഒരു രാഷ്ട്രത്തിന് ഉണ്ടാക്കിയതല്ല ഒരു ചെറിയ കൂട്ടായ്മക്ക് അതായത് ഇപ്പോൾ സംസ്ഥാനത്തിന് ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രം ഭാഷയായി ഒതുങ്ങുന്നു സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് എന്ത് ഒരു രാജ്യത്ത് ഉണ്ടാക്കിയതാണെങ്കിലും ഇപ്പോൾ ലോകം മൊത്തം ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ലേറ്റിൻ ഭാഷ ഉണ്ടായിട്ട് പോലും ഇംഗ്ലീഷിന് അത്രയും സ്വാധീനം കിട്ടാനുള്ള കാരണം യു എസ് എ ആണെന്ന് മനസ്സിലാക്കണം മലയാള ഭാഷ ഇപ്പോൾ മലയാളികളില്ലാത്ത രാജ്യങ്ങളില്ല മലയാള ഭാഷ സംസാരിക്കാത്ത രാജ്യങ്ങളില്ല എന്നാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം മലയാളത്തിൻ്റെ മനോഹാരിത എത്രത്തോളം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓരോ രാജ്യത്തും ഓരോ ഭാഗങ്ങളിലായി മലയാളത്തിൻ്റെ സ്വാധീനം കൊണ്ടുവരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അതിമനോഹരവും സുന്ദരവും സുസ്ഥിരവുമായ ഒരു നിമിഷങ്ങൾക്ക് വേണ്ടി ഓക്കെ താങ്ക്സ്